മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെ ഏറെ സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ അവന് ചുമ്മാതെ ഇരിക്കുമ്പോൾ സന്തോഷിക്കാൻ വേണ്ടി കിട്ടുന്ന ഒരു അവസരമാണ് സിനിമ കാണുക എന്നുള്ളത് സിനിമയിൽ നിന്ന് കിട്ടുന്ന ആ വിനോദങ്ങളും അതിലെ തമാശകളും വളരെ കാര്യപ്രസക്തമായ ചില കാര്യങ്ങൾ ഒക്കെ പറയുന്നതും ഒക്കെ അവന് വളരെ ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് പക്ഷേ സിനിമാ ലോകത്ത് നമ്മൾ കാണുന്ന ജീവിതമല്ല സിനിമയിൽ ഉള്ളത് അവിടെ സംഭവിക്കാൻ വിഷമമുള്ള കാര്യങ്ങൾ അത് നമുക്ക് അത്ഭുതങ്ങൾ തോന്നുന്ന രീതിയിൽ സിനിമയിൽ എടുത്ത് കാണിക്കും പിന്നെ രണ്ടാമത് സിനിമായിൽ നടന്മാരോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളും അവരെ കാണുന്ന വളരെ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് അവരെ നമ്മൾ ഒരു ആരാധന മനോഭാവം ഒക്കെ കാണുന്നു അവരിൽ ഒരു നമ്മൾ ചിന്തിക്കുന്നു അപ്പം അങ്ങനെയുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ ഇവരെ കൊണ്ടുപോവുകയാണ് അവരിന്ന് നല്ല മാതൃക വളരെ ചുരുക്കം ചില ആൾക്കാരിൽ നിന്ന് നല്ലൊരു മാതൃക കിട്ടും പക്ഷേ അവർ ഒക്കെ നമുക്ക് നമ്മുടെ മക്കൾക്കോ നല്ലൊരു മാതൃക കാണിച്ചു കൊടുക്കുക ആണെങ്കിൽ അത് നല്ലതാണ് കാരണം ഇവരെ കൂടുതൽ ആൾക്കാർ കൊണ്ട് മനസ്സിലാക്കാതെ തന്നെ അവരെ അവരുടെ അനുകരിക്കാൻ വേണ്ടി നമ്മുടെ പിള്ളേർ ശ്രമിക്കാറുണ്ട് അപ്പോൾ അതാണ് ഈ സിനിമാലോ ഇതുണ്ടാവുന്ന ഏറ്റവും വലിയ ഭവിഷ്യത്തും നല്ല കാര്യങ്ങളുണ്ട് ആ നല്ല കാര്യങ്ങളുടെ കൂടെ തന്നെ ഇവർ സിനിമ കണ്ടുകൊണ്ട് അതിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്തു നോക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അങ്ങനെ അപകടം ഉണ്ടാകാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും പക്ഷേ സിനിമ മനുഷ്യൻ്റെ ആസ്വാദ്യത കലയിൽ സന്തോഷിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല പാട്ടുകളും നല്ല തമാശകളും ഒക്കെ ഉണ്ടായി അങ്ങനെ ആനന്ദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം ആ കാര്യത്തെ നല്ല നിലയിൽ മനുഷ്യന് ഗുണപ്രദമായ രീതിയിൽ നല്ലത് നടക്കുന്നതിന് വേണ്ടി ശ്രമിക്കാൻ വേണ്ടി ശ്രമം അറിയാനും നല്ലതാണ് ഈ പക്ഷേ സിനിമാ ലോകത്തുള്ള പല കാര്യങ്ങളെപ്പറ്റി ചുമ്മാതെ നടന്മാരെപ്പറ്റി എല്ലാം കണ്ടമാനം വാർത്തകൾ ടി വിയിൽ കൂടിയും പത്രങ്ങളിൽ കൂടിയും എല്ലാം വരാറുണ്ട് കുറെ ഒക്കെ സത്യമാണ് പക്ഷേ ഒത്തിരി കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ വെറുതെ പറഞ്ഞു മനുഷ്യനെ കൂടുതൽ ആകർഷിക്കാൻ വേണ്ടീട്ട് ഉണ്ടാക്കുന്ന പ്രവണത നമുക്ക് കാണാൻ കഴിയും സിനിമാ ലോകം അങ്ങനെയാണ് കാരണം നമ്മൾ അവർ പറയുന്നതാണ് ശരി എന്ന് അവർക്കും നമുക്ക് തോന്നും അതും ശരിയാണ് നമുക്ക് തോന്നുകയും അതുപോലെ അവരെ അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന അവരെ അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പ്രവണത നമ്മളിലും ഉണ്ട് പക്ഷേ നല്ല കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക ആണേൽ അത് നല്ല കാര്യമാണ് വെറുതെ പത്രവാർത്തയിലോ മറ്റുള്ള കാണുന്ന കാര്യങ്ങൾ എല്ലാം അവരെ പറ്റി പറയുന്നത് ശരിയാണ് എന്ന് നമ്മൾ ചിന്തിക്കരുത് പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർ നമ്മൾ ഒത്തിരി കാണിച്ച തരുന്നില്ല അവരുടെ ജീവിതത്തിലും പല പോരായ്മകളും നമുക്ക് ഒക്കെ നമ്മൾ ചിലപ്പോൾ നേരിട്ട് നമ്മൾ അറിയുന്ന കാര്യങ്ങളായിരിക്കും അങ്ങനെ അല്ലാതെ നല്ലൊരു നിലയിലേക്ക് മനുഷ്യന് ഗുണപ്രദമായ രീതിയിലേക്ക് സിനിമ കൊണ്ടുപോകാൻ നല്ല കാര്യമാണ് കാരണം വെറുതെ ഒക്കെ ഇരിക്കുന്ന ചില സമയങ്ങളിൽ വല്ലപ്പോഴൊക്കെ ഒരു ആനന്ദം കിട്ടുന്നതിന് വേണ്ടി നമുക്ക് സന്തോഷിക്കാൻ വേണ്ടി കുടുംബമായിട്ടിരുന്ന് കാണുമ്പോൾ എല്ലാവർക്കും മനസ് തുറന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വേണ്ടി ഒക്കെ കിട്ടുന്ന ഒരു വേദിയാണ് സിനിമ അപ്പം ആ സിനിമയെപ്പറ്റി കേൾക്കുന്നത് നമ്മൾ നോക്കാൻ നമുക്ക് നല്ലത് മാത്രം ഉൾക്കൊള്ളുക ബാക്കിയുള്ളത് അതേപടി എടുത്ത് കളയുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നല്ല കാര്യങ്ങൾ നമ്മൾ അതിനെ മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ഒക്കെ പറഞ്ഞു മനസിലാക്കി കൊടുത്തും നന്നായിട്ട് പോകുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ നല്ലത് പിന്നെ സിനിമ ഒരു പ്രത്യേക ലോകമാണ് അതുകൊണ്ട് അതിനെ പിടിച്ച് കണ്ടമാനം വ്യാജ വാർത്തകൾ വരും കാരണം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് അപ്പുറമാണ് അവർ എല്ലാം കാണിച്ചു കൂട്ടുന്നത് അപ്പം അതുകൊണ്ട് അവർക്ക് അതെല്ലാം കഴിയും എന്നുള്ള പ്രതീക്ഷ ഒക്കെ ഉണ്ടാകുന്ന കൊണ്ട് അവരെപ്പറ്റി അങ്ങനെ ഒരു ആവശ്യമില്ലാത്ത വ്യാജവാർത്ത ഉണ്ടാക്കുന്നതിന് സാധിക്കും പക്ഷേ അതൊന്നും അല്ല അവരെ അവരെ അവർക്ക് സംവിധായകർ പറഞ്ഞു കൊടുക്കുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ കഥ എഴുതിയ പുള്ളി പറഞ്ഞു കൊടുക്കുന്നതോ അതങ്ങനെ ഉള്ള ഇതിൽ അവർ അത് ആവർത്തിക്കുന്നതാണാണ്ട് അവരുടേത് ആയിട്ടല്ല അത് വരുന്നത് അപ്പം അതൊക്കെ നമ്മൾ മനസിലാക്കി കൊണ്ട് പോകുന്നതിന് വേണ്ടിയുള്ള നല്ലൊരു കാര്യം നമ്മൾ ഉണ്ടാവാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്